ആംഗ്യ ഭാഷ കാണിക്കുന്നതിലൂടെ എതിരെ നിൽക്കുന്ന ആൾക്ക് ചിലപ്പം മനസ്സിലാകും ഇല്ലെങ്കിൽ അവരുടെ ഭാഷ പഠിക്കണം മലയാളം സംസാരിക്കാനറിയാത്തൊരാൾക്ക് നമ്മുടെ ഭാഷ പഠിപ്പിച്ച് കൊടുക്കുക അതാണ് ഏറ്റവും ഉചിതമായ മാർഗ്ഗം അതാകുമ്പം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നമ്മൾക്ക് അവർക്കു മനസ്സിലാകുന്ന രീതിയിൽ ആംഗ്യ ഭാഷ കാണിക്കുക അല്ലെങ്കിൽ അവരുടെ ഭാഷ സംസാരിക്കുക അവരിലൊരാളായി തീരുക എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല മാർഗ്ഗം അവരെ മലയാളം പഠിപ്പിക്കുക എന്നതു തന്നെ ആയിരിക്കും കാരണം നമ്മുടെ ഭാഷയീ പറയുമ്പോഴായിരിക്കും നമ്മൾക്കാണെങ്കിലും ഒരു ഒരു ഇതു കിട്ടുന്നത് അവരുടെ അവർ മലയാളം പഠിപ്പിക്കാൻ ഏറ്റവും എളുപ്പമാണെന്നാണെൻ്റെ വിശ്വാസം മലയാളം പഠിപ്പിക്കുക അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് അവർക്കവരുടെ ആശയ വിനിമയം നടത്താൻ പറ്റും നമുക്ക് നമ്മുടെ ആശയവിനിമയം നടത്താൻ സാധിക്കും